ആ ജോലി ചെയ്യുമ്പോള് പാട്ടൊക്കെ പാടാറുണ്ട് മൂളിപ്പാട്ടൊക്കെ പാടി പാട്ട് പാടീംകണ്ട് ജോലി ചെയ്യണതൊക്കെ ഇഷ്ടമാണ് പിന്നെ കൃഷിയിടത്തിലൊക്കെ ഇപ്പോള് നമ്മള് ചെല്ലുമ്പോള് ചിലപ്പോള് നമുക്ക് ആ ഒരു കാറ്റിന്റെ ആ ഒരു തണുപ്പ് പിന്നെ അതുപോലെ തന്നെ പാന് ഇലകളുടെ സൗണ്ട് അല്ലെങ്കിൽ കിളികളുടെ സൗണ്ട് ഒക്കെ നമുക്ക് ഒരു രസമാണല്ലോ അത് നമ്മള് ആസ്വദിച്ചുംകണ്ടന്നേയാ ചിലപ്പോള് കുയിലിന്റെ കുയിലിന്റെ സൗണ്ട് കേള്ക്കുമ്പോള് തിരിച്ച് കൂകാറും ഒക്കെയുണ്ട് അങ്ങനെ ഒക്കെ തന്നെയാണ് നമ്മള് ചിലപ്പോള് നല്ല രീതിയിലൊക്കെ അല്ലേ ആ ജോലി എടുക്കുമ്പോള് ചിലപ്പോള് കുറേ നേരം നീണ്ടുനില്ക്കണ ജോലിയോ ആണെങ്കില് ചിലപ്പോള് പാട്ടൊക്കെ പാടിയിട്ടും ആസ്വദിക്കാറൊക്കെയുണ്ട്